പത്ത് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് പതിനൊന്ന് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മൂന്ന് നാല് രണ്ടായിരം ഇരുപത്തഞ്ച് നാല് രണ്ടായിരത്തി പതിനാല് അഞ്ച് ഏഴ് രണ്ടായിരത്തി അഞ്ച്